ജോലി സ്ഥലത്ത് ഞാന് അഭിമുഖീകരിച്ച വെല്ലുവിളി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പാട്ട് ടീച്ചറാണ് ഞാൻ അത്യാവശ്യം നല്ലോണം പാട്ട് പാടും അപ്പം പിന്നെ അങ്ങനെ ഞാന് ഇങ്ങനെ പി എസ് സി ഒക്കെ എഴുതിയിട്ടാണ് എനിക്കൊരു ഗവൺമെൻറ് സ്കൂളില് അതായത് ഒരു ജോലി കിട്ടിയത് പാട്ട് പഠിപ്പിക്കാനായിട്ട് അപ്പഴെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതായത് ആ സമയത്തിങ്ങനെ ആർട്സ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കുറെ കുട്ടികൾ അതായത് സെലക്ഷൻ ആകുമല്ലോ ക്വാളിഫൈ ആകുമല്ലോ അതായത് ഉപജില്ല മത്സരങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ഒരുപാട് കുട്ടികൾ ക്വാളിഫൈ ആകും അപ്പോൾ പാട്ടിൻ്റെ ഒരു ഇതുള്ളൊരു എല്ലാവരെയും എൻറ്റടുത്തേക്കാണല്ലോ വിടുക അപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒരു സ്കൂളിൽ പോയതാണല്ലോ അപ്പോൾ നമ്മള് അവരെ നല്ലോണം പ്രാക്ടിസൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയി നമ്മള് സ്റ്റേജിലൊക്കെ കൊണ്ടുപോയി അപ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലളിതഗാനവും ദേശഭക്തിഗാനവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയേ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ നാടാൻപാട്ട് അങ്ങനെ മൂന്ന് ഇതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തത് അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഒരു വലിയ ചുമതലയായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ അത് ഒരിക്കലും പരാജയപ്പെട്ടില്ല ഞാൻ അവിടെ അവരെ കൊണ്ടുപോയി അവര് ജില്ലയിലേക്ക് ക്വാളിഫൈ ആയി സ്റ്റേറ്റ് ലെവൽ വരെ അവരെ കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു